ധന്വന്തരി മസ്സാജ് സെൻ്റെറല്ലേ അ എനിക്ക് ഇച്ചിരെ വിവരങ്ങളൊക്കെ അറിയാൻ ഞാൻ ഇവിടെ ഇല്ലേ ഞാൻ പിന്നെ വിദേശത്താണ് വരുമ്പഴത്തേക്കിനും എനിക്ക് ഇച്ചിരെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു

ഇല്ല നാട്ടിൽ വരികയെ ഉള്ളൂ ഞാൻ അടുത്ത ആഴ്ച വരത്തേ ഉള്ളൂ അപ്പോൾ എനിക്ക് പ്രസവ ശുശ്രൂഷയെ പറ്റിയൊക്കെ ഒന്ന് അറിയണമായിരുന്നു അതിന് എത്ര നാളത്തെയാ പരിപാടി എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഞങ്ങളിവിടെ ഇംഗ്ലീഷ് മരുന്നൊക്കെയല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ ആയുർവേദമാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു അപ്പം ഒന്ന് എന്നാൽ അതിനെ പറ്റി ഒന്ന് നോക്കാമെന്ന് വെച്ചുകൊണ്ടാണ് അപ്പം ധന്വന്തരിയിൽ നല്ല ചികിത്സ് നല്ല ഇതാണെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് അപ്പോൾ എ അല്ല എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ എനിക്കും വേണം എൻ്റെ മോൾക്കും വേണം എനിക്ക് പിന്നെ ഇത് പിന്നെ ഇച്ചിരി വണ്ണം ഒക്കെ ഉള്ളതാണ് അപ്പം അതൊന്ന് ഇച്ചിരെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം സ്ലിം ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റീം ബാത്ത് ഒക്കെ ഉണ്ടോന്നൊക്കേ അറിയണം അപ്പം അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടൊക്കെയാണ് വിളിച്ചത് ഈ രണ്ടു കാര്യങ്ങളും എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു ആ

എങ്ങനെ അല്ല ഹൈ ഹൈ ഹൈ ഹൈ ഹൈ ആ

ആ ഹാ

അ ആ ഇല്ല ഉം ആ ഹാ ഉം ഉം ആ മസാജിൻ്റെ എത്ര ദിവസത്തെ പ്രോഗ്രാമാണ് അല്ല അവിടെ വന്നാൽ ഞങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടോ എങ്ങനെയൊക്കയാണ് ഭക്ഷണം ഒക്കെ അവിടുന്ന് തന്നെയാണോ ആ അപ്പം അതിൻ്റെയൊക്കെ ആ അതിൻ്റെയൊക്കെ റെയിറ്റും ഒന്ന് പറയണേ അ ആയിക്കോട്ടെ അ അപ്പോൾ ഞങ്ങള് വന്നുകഴിഞ്ഞാൽ നിങ്ങള് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുതരും

അ എല്ലാം നോർമലാണെങ്കിൽ നോർമലാണെങ്കിൽ നോർമലാണ് അ ആ ഇല്ല ഉം ഉം ഉം ഉം പിന്നെ കഷായമോ വല്ല ഇതോ അരിഷ്ടം ഉണ്ടെന്ന് ഒക്കെ പറയുന്നുണ്ടല്ലോ അപ്പം അതെല്ലാം ഉണ്ടോ എന്ന് അറിയാൻ നമ്മള് വേറെ എങ്ങും ഒന്നും പോകുകയോ മേടിക്കുകയോ ഒന്നും വേണ്ടല്ലോ അപ്പം അത് എത്ര ദിവസത്തെ പ്രോഗ്രാമാണ് അത് അ ഇല്ല ഞങ്ങൾക്ക് അവിടെ അവിടെ നിന്ന് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഉം ആ ഉണ്ട് അത് ഏഴ് കുളി എന്നോ അഞ്ചു കുളി എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് അപ്പം അതിനൊന്നും നമ്മള് സാധനം മേടിച്ചുകൊണ്ട് വരണ്ടല്ലോ ഉം അത് ലേഡീസ് തന്നെയാണോ ലേഡീസിനെ ചെയ്യുന്നത് അതോ ചെയ്തു കഴിഞ്ഞിട്ടെ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് പറയാനൊക്കത്തുള്ളു അല്ലെ

ആ ഒക്കെ ഇത്രയും ആ ഇത്രയും കാര്യമൊന്നും അറിയാനായിരുന്നു കാര്യം ഒന്നറിയാൻ ഞാൻ വരുമ്പോഴത്തേനും വിളിക്കാം അ വിളിച്ച് ഞാൻ ബുക്ക് ചെയ്യാം ഓക്കെ അ അ അന്നേരത്തേനും ബുക്ക് ചെയ്താൽ മതിയല്ലോ അല്ലെ ഓക്കേ താങ്ക്യു ഓക്കെ താങ്ക്യു ഓക്കേ ഓക്കേ